ഞാൻ ഇത് രമ്യ ചങ്ങനാശ്ശേരിയിലെ രമ്യ ഗ്യാസ് ഏജൻസിയില്ലേ ഇത് ഞാൻ തുരുത്തിയിൽ നിന്നുള്ളൊരു കൺസ്യൂമറാണ് എനിക്ക് രണ്ട് ദിവസത്തേക്ക് മൂന്നാറിന് ഒരു മൂന്നാറിലൊരു ക്യാമ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെനിക് അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ടാണ് ഗ്യാസ് പോർട്ടബിൾ സ്റ്റവ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് പറ്റിയൊരു ഗ്യാസ് സിലിണ്ടറ് എനിക്ക് ആവശ്യമായിരുന്നു അപ്പം ഏജൻസികളിൽ നിന്ന് ഇത് ലഭിക്കുവോ എന്നറിയാനാണ് ഞാൻ വിളിക്കുന്നത് അതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരുകയാണെങ്കിൽ നല്ലതായിരുന്നു അതിനുവേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട് അത് മറുപടിയൊന്ന് എത്രയും പെട്ടന്നൊന്ന് അറിയിക്കയാണെങ്കിൽ നല്ലതായിരുന്നു ഇരുപത്തി വരുന്ന മാസത്തേക്കാണ് എനിക്ക് യാത്ര പോകേണ്ടത് അതിന് മുന്നേ ഈ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ ലഭിക്കുമല്ലോ അല്ലെ അതിന് എമർജൻസി ബുക്കിങ്ങിന് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് കൂടിയൊന്ന് പറഞ്ഞുതന്നാൽ നല്ലതായിരുന്നു